ആദ്യമായിട്ട് ഞാൻ പറയട്ടെ ഞാനൊരു ടീച്ചറായിരുന്നെങ്കിലും നമ്മുടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഞാൻ വിദേശത്താണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂളുകളിലെ വിഭവങ്ങളുടെ കുറവ് ലാക്ക് ഓഫ് റിസോഴ്സ്സൊക്കെ എന്താണെന്ന് എനിക്ക് വലിയ അറിവില്ല പരിചയമില്ല പിന്നെ ഇങ്ങനെ പോകാം നമ്മളൊക്കെ കേൾക്കുന്നത് ചിലരു പറയും ഗവൺമെൻ്റ് സ്കൂളാണ് നല്ല സ്കൂള് അവിടെ നല്ല പഠിപ്പിക്കാൻ പ്രൈവറ്റ് സ്കൂളാണ് നല്ലതെന്ന് ചിലരും പറയുന്നുണ്ട് പക്ഷേ ഗവൺമെൻ്റ് സ്കൂളുകളിൽ എത്ര ആയാലും റിസോഴ്സ്സിൻ്റെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ റിസോഴ്സ്സ് ഉണ്ടോ എന്ന് റിസോഴ്സസ് എത്രമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല കേട്ടിട്ടുമില്ല പിന്നെ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ മിക്കവാറും റിസോഴ്സ്സൊക്കെ കാണും കാരണം പ്രൈവറ്റല്ലേ അവരും ഫീസുമേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫീസൊക്കെ മേടിക്കുന്നതനുസരിച്ചുള്ള റിസോഴ്സ്സൊക്കെ ഉണ്ട് ടീച്ചേർസ് ഉണ്ട് പിന്നെ ഗവൺമെൻ്റ് സ്കൂളുകളിൽ നല്ല ടീച്ചേഴ്സൊക്കെ കാണും ടീച്ചേഴ്സൊക്കെ ഉണ്ട് പക്ഷേ റിസോഴ്സ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെ എങ്ങനാണെന്നുള്ള കാരണം നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സ്കൂളുകളൊക്കെ പഴയ സ്കൂളുകളതിൻ്റെ അതിനൊന്നും മെയിൻറ്റനൻസ് ഒക്കെ തീരെ കുറവാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മെയിൻറ്റനൻസ് ഇല്ല അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഇപ്പോൾ ലാബോ ഒരു ലാബൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഈ ലാബിലേക്കാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ വേണ്ട സാധനങ്ങളൊക്കെ വേണം അതൊക്കെ ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കാത്തയൊരു കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ ഞാൻ പഠിപ്പിച്ച സ്ഥലത്തൊക്കെ ഒന്ന് രണ്ട് ആഫ്രിക്കയിൽ ഒന്ന് രണ്ട് പത്ത് ഇരുപത് വർഷത്തോളം ആഫ്രിക്കൻ സ്കൂളുകളിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആ അവിടുത്തെ കാര്യമാണെങ്കിൽ അവിടെയൊക്കെ സ്കൂളുകളിലൊക്കെ എല്ലാ എല്ലാ റിസോഴ്സും അവിടെ ഇങ്ങനെ ലാക്ക് ഓഫ് റിസോഴ്സ്സ് എന്നുള്ളയൊരു ഒരു പ്രശ്നം ഒന്നും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല പിന്നെ ടീച്ചേർസ് പിന്നെ ടീച്ചസേഴ്സിൻ്റെ കുറവുണ്ട് ന്നേ അതായത് പ്രത്യേകിച്ച് സയൻസ് ആൻഡ് മാത്സ് ഡിപ്പാർട്മെൻറ്റുകളിലൊക്കെ ടീച്ചേർസ് എക്വിപ്റ്റ് അല്ലെങ്കിൽ ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേർസൊക്കെ കുറവുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനുള്ള കുറവുകളൊന്നും കാണുകേലാ നമ്മുടെ നാട്ടിൽ അതായത് ക്വാളിഫൈഡ് ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലമാല്ലേ അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലിവിടെ ഒരു പക്ഷേ അങ്ങനെയല്ലാതെ ഇങ്ങനെ ഫിസിക്കൽ ഫെസിലിറ്റീസൊക്കെ എത്രമാത്രം ഫിസി ഫെസിലിറ്റീസ് സ്കൂൾ കെട്ടിടങ്ങൾ പിന്നെ അതിൻ്റെ സ്കൂൾ കെട്ടിടങ്ങൾ ഒക്കെ പുറമെ നിന്നൊക്കെ കണ്ടാൽ അത്ര വലിയ അത്രേയൊരു ക്ലീനായിട്ടോ വൃത്തിയായിട്ടൊന്നും തോന്നാറില്ല പുറമേ അകമേ അകമയൊക്കെ എത്രമാത്രം ക്ലീനാണ് ഹൈജീനിക്കാണ് അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല പിന്നെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പേപ്പറുകളിലൊക്കെ കേൾക്കുന്നതല്ലാതെ അത് നേരിട്ട് എനിക്കൊരു അനുഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെകുറിച്ച് കൂടുതാലായൊന്നും സം